ഗ്രാമീണ പ്രദേശങ്ങളിൽ സാങ്കേതിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് സാങ്കേതിക വളർച്ച വളരെ വൈകിയായിരിക്കും എത്തുന്നത് അല്ലെങ്കിൽ ഒരു സാങ്കേതിക നേട്ടം അല്ലെങ്കിൽ സാങ്കേതിക വളർച്ച അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ചെന്ന് എത്തിപ്പെടാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെയുള്ള ആ ആളുകൾ മറ്റു ആളുകളെ വെച്ച് പിന്നോട്ട് പോവുകയും അവർ ആ സാങ്കേതികവിദ്യ മനസ്സിലാക്കി എടുക്കാനും ആ വളർച്ചയെ ഉൾക്കൊള്ളാനും കുറച്ച് സമയമെടുക്കും അപ്പോൾ ആ എടുക്കുന്ന സമയം കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഓരോ ബിൽഡിങ്ങായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ ഇപ്പം എല്ലാ വീടുകളിലും കണ്ടുവരുന്നതാണ് വൈഫൈ പണ്ടുള്ള കാലങ്ങളിൽ ഒരു വീട്ടിലും ഇല്ലാത്ത ഒരു സംഭവമാണ് വൈഫൈ മൊബൈലുള്ള നെറ്റ് മാത്രമാണ് പക്ഷേ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് വൈഫൈ പക്ഷെ ചില ഗ്രാമപ്രേദേശങ്ങളിൽ ഇപ്പോഴും വൈഫൈ അവൈലബിലിറ്റി എത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നത് നെറ്റ് തന്നെയാണ് മാത്രമല്ല റേഞ്ച് പ്രശ്നം നെറ്റ് വർക്ക് ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗ്രാമപ്രദേശങ്ങൾ വളരെയധികം നേരിടുന്നതാണ് അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് സാങ്കേതികവിദ വിദ്യ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വളർച്ച എത്തിപ്പെടാൻ എടുക്കുന്ന സമയമാണ് ആ ഒരു പ്രത്യേക ഗ്രാമപ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്